കഴിഞ്ഞ ഒരു പത്തുകൊല്ലം മുമ്പുള്ള സമസ്യത്തിലിപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയില് ഇപ്പോൾ നമ്മുടെ നിഫ്റ്റിയിലും സെബിയൊക്കെ വച്ച് നോക്കുമ്പോൾ നമ്മുടെ സാമ്പത്തികസ്ഥിതി ഭയങ്കരമായിട്ട് മുന്നോട്ടു പോയിട്ടുണ്ട് അതോ അതുകൊണ്ട് തന്നെ നമ്മള് കടം കുറവാണ് നമ്മള് കടം കൊടുക്കാന് തുടങ്ങി നമ്മുടെ നമ്മുടെ രാഷ്ട്രം കടം കൊടുക്കാന് തുടങ്ങി പിന്നെ നമ്മുടെ ഇന്റര്നെറ്റ് ബാങ്കിങ്ങും നമ്മളടേത് പണ്ട് നമ്മള് എല്ലാത്തിനും നമ്മള് ബാങ്കിലേക്ക് പോകുവായിരുന്നു ഇപ്പം നമ്മള് ബാങ്ക് നമ്മുടെ കൈകളില് തന്നെ ഉണ്ട് നമ്മുടെ മൊബൈല് ഫോണ് ഉപയോഗിച്ചും മറ്റും നമ്മുടെ ലാപ്ടോപ്പ് നമ്മുടെ ഈ കമ്പ്യൂട്ടര് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഫണ്ട് ട്രാന്സ്ഫര് ചെയ്യാനും ഫണ്ട് നമുക്ക് മറ്റേതിലേക്ക് പേമെന്റ് ചെയ്യാനും ഒരു ഫോണ് റീചാര്ജ്ജ് ചെയ്യാനും എന്തിനും ഒരു ഫീസക്കാനും എന്തുകാര്യത്തിനും നമുക്കിപ്പം ഡിജിറ്റല് മാര്ക്കറ്റ് അവൈലബിള് ആണ് പിന്നെ നമ്മുടെ വേ വെ നമ്മള് നമ്മുടെ രാഷ്ട്രം പലസ്ഥലങ്ങളിലും ഒരുപാട് ഇന്വെസ്റ്റ് ചെയ്യണ കാരണായതു കൊണ്ടും നമ്മുടെ രാജ്യങ്ങളിലേക്കും പലത് രീതിയിലുള്ള നമ്മുടെ രാജ്യത്തെ ഓരോ ഇത് കണ്ടിട്ട് നമ്മുടെ ഉയര്ച്ച കണ്ടിട്ട് പല രാജ്യങ്ങളും നമ്മുടെ അതിലേക്ക് ഇന്വെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയില് നല്ല ഭയങ്കര ഉയര്ച്ച നമുക്ക് വന്നിട്ടുണ്ട് അതിനു ഏറ്റവും നമുക്ക് ഏറ്റവില് നമുക്ക് ടൂറിസം പിന്നേ വ്യവസായങ്ങള് പിന്നെ നമ്മുടെ സ്പോര്ട്സ് അതൊക്കെ നമ്മള് മറ്റുള്ള നമുക്ക് നമ്മുടെ ഉയര നമ്മുടെ സാമ്പത്തിക ഉയര്ച്ച ഉയര്ക്കാനായിട്ട്